വായ്പ എടുക്കുന്നത് സാധാരണക്കാരൻ്റെ ഒരവകാശമാണ് അവർ വായ്പ എടുക്കുന്നത് അവരുടെ വിദ്യാ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു ഒരു ഭവന നിർമ്മാണത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അത്യാവശ്യ കേസുകൾക്കു വേണ്ടി മാത്രമായിരിക്കും നമ്മൾ ഒരു വായ്പ എടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വായ്പ എടുക്കുന്നത് നമ്മൾ ബാങ്കുകളിലോ അല്ലെങ്കിൽ ഫിനാൻസിങ്ങിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയായിരിക്കും നമ്മളിതിനു വേണ്ടിയിട്ട് നമ്മളീ പോകുന്നത് അതെടുക്കുന്നത് മൂലം നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നമുക്ക് സാധിച്ച് കിട്ടുമെങ്കിൽ പോലും അതുമായിട്ട് നമ്മൾ മുൻപോട്ട് പോകണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പലിശകളടക്കുകയും അതു പോലെ പലിശ അടയ്ക്കുകയും അതു പോലെ തന്നെ ഉത്തരവാദിത്വകരമായിട്ട് നമ്മളാ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം എങ്കിൽ മാത്രമേ അത് മുൻപോട്ടു പോകുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇരട്ടി ദോഷ ഫലങ്ങളാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതു പോലെ നമ്മുടെ ഉള്ള കുടുംബം വീട് വരെ യെങ്ങടെ നമുക്ക് നമ്മുടെ ലോൺ വെച്ചിരിക്കുന്ന സംഭവം വരെ യെങ്ങടെ നമുക്ക് നഷ്ടപ്പെടാൻ ഇടയുണ്ട് അതു പോലെ തന്നെ നമുക്കൊരു അത്യാവശ്യ സന്ദർഭങ്ങളിലായിരിക്കില്ല നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്നൊരു സന്ദർഭത്തിനവരുടെ വിദ്യാഭ്യാസത്തിനൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ലോൺ എടുക്കുന്നത് വായ്പകൾ അതിനു വേണ്ടിയിട്ട് നമ്മളൊത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഒത്തിരി ബാങ്കുകൾക്കൂടിയാണേൽ നമ്മളൊത്തിരി കയറി ഇറങ്ങി വേണം ഓരോ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ നമ്മളുദ്ദേശിക്കുന്ന രീതിയിൽ നമുക്കാദ്യ സാധിച്ച് കിട്ടിയെന്നു വരില്ല അതിൻ്റെ പിന്നിൽ ഒത്തിരി ഒത്തിരി പ്രാവശ്യം നമ്മൾ പോയി പോയി പോയി വരേണ്ടി വരും ഇത് ഒരു ചിലവുകളായിരിക്കും അതെല്ലാം മുൻകുട്ടി കണ്ടു വേണം പിന്നെ നമുക്കിതിൻ്റെ ഈ ഈ ബാധ്യത നമുക്കുണ്ടാകുന്നുള്ളൊരു മനസ്സിലൊരു ഉറപ്പുണ്ടാകണം ആ ബാധ്യത നമ്മൾ അടച്ചു തീർക്കണം അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി ഉത്തരവാദിത്വങ്ങൾ ഇതിനകത്തുന്നുണ്ട് കർഷകരെ സംബന്ധിച്ചിങ്ങനെയുള്ള ലോണുകൾ എടുക്കുന്നതും വായ്പകൾ സ്വീകരിക്കുന്ന മൂലം അങ്ങേയറ്റം ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തുന്ന ഒരവസ്ഥ വരെ ഇതു മൂലം ഉണ്ടാകുന്നുണ്ട് അങ്ങനെയുള്ളതെല്ലാം നമ്മൾ മുൻനിർത്തി കണ്ട് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് തീർക്കുമ്പോഴാണ് നമുക്കിത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഞങ്ങളുടെ കൃഷി ആവശ്യങ്ങൾക്കു വേണ്ടിയും അതു പോലെ തന്നെ ലോണുകൾ നമ്മൾ ഒത്തിരി ഒത്തിരി ലോണുകളെടുത്തു കഴിഞ്ഞാൽ അത് ഒത്തിരി പ്രശ്നമായിരിക്കും നമ്മൾ പരമാവധി കുറച്ചെടുക്കുക കുറച്ചെടുത്ത് കുറച്ചെടുത്തതിന് ശേഷമായിരിക്കും നമുക്ക് വേണമെങ്കിൽ നമ്മുടേതാദ്യത്തെ ഗഡു നമ്മളടച്ചു തീർത്തതിനു ശേഷം നമുക്ക് അടുത്തതിലോട്ട് നമ്മൾ പോകുന്നത് അപ്പോൾ ഗ്രാമീണരെ സംബന്ധിച്ചിടത്തോളം എന്നാ പട്ടണങ്ങൾ താമസിക്കുന്ന പോലെയുള്ള വരുമാനക്കാരായിരിക്കുകയില്ല അവരെ സംബന്ധിച്ചോളം അവർക്ക് എപ്പോഴും ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഒരു തുച്ഛമായ വരുമാന മാർഗ്ഗം മാത്രമേ അവർക്കുണ്ടാകുകയുള്ളൂ ആ തുച്ഛമായ വരുമാന മാർഗ്ഗത്തിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന പരിമിതികൾ ആ വരുമാനം അത് മുൻനിർത്തി ആണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഈ കൃഷിയിൽ ചിലപ്പം നമ്മൾ കൃഷിക്ക് വേണ്ടിയായിരിക്കും നമ്മൾ ലോണുകൾ വായ്പ എടുക്കുന്നത് ഇങ്ങനെ വായ്പ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ കൃഷി മുൻ നിർത്തി കൊണ്ടു പോകണമെങ്കിൽ ഇത് ഒത്തിരി ഈ പൈസകൾ ചിലപ്പം നമുക്കാ കൃഷിയുണ്ട് നല്ല രീതിയിൽ വരുമ്പോഴായിരിക്കും നമുക്കതും കൊണ്ട് ചിലപ്പോൾ നല്ല രീതിയിൽ നമ്മളാക്കിയെടുത്ത് വരുമ്പോളായിരിക്കും ഒരു മഴയോ ഒരു കാറ്റോ എന്തെങ്കിലും പ്രകൃതിയിലെന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ കൂടുതൽ വെയിൽ വന്നാൽ പോലും നമ്മുടെ ആ കൃഷിയിടങ്ങളെല്ലാം അവിടെ നശിക്കും അപ്പം നമുക്ക് തിരിച്ച് നമുക്കാ വായ്പ അടയ്ക്കാൻ സാധിച്ചെന്നു വരില്ല അങ്ങനെ വായ്പ അടക്കാതെ വന്നു കഴിയുമ്പോഴാണീ വായ്പകൾ നമ്മുടെ ഉള്ളിൽ ഇത് കൂടി കൂടി വന്ന് നമ്മുടെ മനസ്സിന് മനുഷ്യൻ്റെ ആത്മഹത്യയോളം വരും നമ്മളെത്തുന്നൊരവസ്ഥയുണ്ടാകും അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് പിന്നതൊന്ന് ഇല്ലാത്ത വരുന്ന അവസ്ഥകളിൽ നമ്മൾ മുൻപോട്ട് പോകുക അതിന് ഒത്തിരി തരണം ചെയ്ത് ഓരോരോ കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് നമ്മളതെല്ലാം ആലോചിച്ച് കുടുംബത്തിലുള്ള ഒരു ഉന്നത തീരുമാനങ്ങളെടുത്തു വേണം നമ്മളീ കാര്യങ്ങളോരോന്നും ചെയ്യാൻ അങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഇതിനുമായിട്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ എന്നു വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്കു വേണ്ടി വിദ്യാഭ്യാസ ലോണുകൾ നമ്മൾ എടുക്കും